ഇപ്പോൾ കുട്ടികൾ ഇന്നത്തെ കാലത്ത് കളിയ്ക്കണ കളികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ കുട്ടികൾ കളിയ്ക്കാറുണ്ട് അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോള് പിന്നെ പല രീതിയിൽ ഹോക്കി അങ്ങനത്തെ കളികളൊക്കെ കളിക്കാറുണ്ട് പിന്നെ പണ്ട് എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ നല്ല രീതിയിൽ പല രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നു പിള്ളേര് ഇപ്പോൾ പുതുതായിട്ട് പുറമേ ഒന്നും പോയിട്ട് അങ്ങനെ കളിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോണിനും കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഫോണുമായിട്ടും ഒക്കെ ആയിട്ടാണ് ഫുള്ളും കൂടുതലായിട്ടും അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവര് പുറമേ ഉള്ള കളികളിലൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് അവർ വീടുകളുടെ ഉള്ളിൽ റൂമുകൾക്ക് ഉള്ളിൽ മാത്രമായിട്ട് കളിക്കുന്ന കളികളാണ് കൂടുതലായിട്ടും കളിക്കുന്നത് ഇപ്പോൾ പബ്ജി അങ്ങനത്തെ കളികളാണ് കൂടുതലായിട്ടും ആൾക്കാർ അവര് കളിക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പോൾ അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറമേ ഉള്ള കളികൾ കാര്യങ്ങളൊക്കെ കുറവായിട്ടാണ് ഉള്ളത്